ചേട്ടാ ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് എത്രേയാണ് റേറ്റ് വരുന്നത് ആ അതെ ഫങ്ക്ഷൻ അടുത്ത മാസം അടുത്ത മാസം ലാസ്റ്റ് ഇരുപത്തഞ്ച് ആ ഒരു ടൈം ആ അല്ല ആൽബം ഒക്കെ വേണം കുറച്ച് കൂട്ടി ആ മേടിച്ചതുണ്ട് ആ

ആ ആ അത്രയും വരും അല്ലേ ആ ഞങ്ങള് ഫംഗ്ഷൻ നടത്തുന്നത് ഇവിടെ വായനാടാണ് ആണ് അല്ലേ ആ ആ സ്ഥലം സ്ഥലം ഇവിടെ ഉണ്ട് അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ ഞങ്ങ് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ അതിനു മുന്നേ വന്ന് ഒന്ന് നോക്കൂ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് നിങ്ങൾ ചൂസ് ചെയ്തോ കുഴപ്പം ഇല്ല ഡെയിറ്റ് എങ്ങനെ ഫംഗ്ഷനോ ആ അത് വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എപ്പോളാണ് ഫ്രീ ഉള്ളതെന്ന് വെച്ചാൽ അടുത്ത മാസം എപ്പോളാണ് ഫ്രീ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞിട്ട് സമയം പറഞ്ഞാൽ മതി ആ അത് കഴിഞ്ഞിട്ട് ഫ്രീ ഉള്ള സമയം ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ എപ്പം പറഞ്ഞ് ഞങ്ങൾക്ക് ഓക്കേ ആണെങ്കിൽ ഞങ്ങൾ കാര്യം സമയം പറയാം ആ അത് ചെയ്യാം അല്ല അഡ്വാൻസ് ആയിട്ട് എത്ര വേണ്ടിവരും ഇപ്പോൾ ആ എന്നാൽ ഇപ്പോൾ ഒരു പത്ത് തരാം എന്നിട്ട് ബാക്കി സ്ഥലം ഒക്കെ നോക്കിയിട്ട് എല്ലാവർക്കും ഓക്കേ ആണെങ്കിൽ നമുക്ക് അതുതന്നെ വെച്ച് കൺടിന്യു ചെയ്യാം ആ പറയാം പറയാം ഓക്കേ